കായിക പരിപാടികളും ടൂർണമെന്റുകളും നടക്കുന്ന കേരളത്തിലെ പ്രധാന കായിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ വേദികൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽത്തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട് ആതിൽ കളികൾ കാണാനും ഇരിപ്പിട ശേഷി ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം വേൾഡ് കപ്പ് ഒക്കെ വന്ന സമയത്ത് വീട്ടിൽ അതായത് വീട്ടിൽ ചാനലിൽ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കാണാൻ പറ്റുമെങ്കിലും കുറെ പേർ ആ ടൈമിലെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അതായത് ടൗണിൽ അതായത് ഇത്ര ടൈം കഴിയുമ്പോഴാണല്ലോ തുടങ്ങുക എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ടൗണിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഒരു വലിയൊരു പ്രൊജക്ടർ വച്ചിട്ട് ഇങ്ങനെ വലിയൊരു സെറ്റപ്പാക്കി കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ആയി ഇരുന്ന് കാണുന്നൊരു സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇരിപ്പിടം അതായത് അങ്ങനെയുള്ള ഇരപ്പിടം എല്ലാം കൂടി സെറ്റ് ആക്കി ഇങ്ങനെ കാണുന്ന അതായത് വേൾഡ് കപ്പ് കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളപ്പോൾ ഇപ്പോൾ അടുത്ത് കഴിഞ്ഞതല്ലേ ഉള്ളൂ വേൾഡ് കപ്പ് പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ഇരുപതിനായിരം മൾട്ടി പർപ്പസ് പിന്നെ ജവഹർലാൽ അണ്ടർ ഫുട്ബോൾ പിന്നെ അതുപോലെ അങ്ങനെ ഒരുപാട് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ അതായത് നമുക്ക് ഇങ്ങനത്തെ പരിപാടികളും കാര്യങ്ങളും കായിക പരിപാടികളും കാര്യങ്ങളും ഒക്കെ കാണാൻ ഒരുപാട് ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്